ഹലോ അതെ ആണ് എന്താണ് അ ആ പറഞ്ഞോളൂ ആ ആ

അഞ്ച് വർഷമായോ ഓക്കേ ഓക്കേ പറഞ്ഞോളൂ ആ ആ ആ ആ ആ ആ ആ ആ ഓക്കേ ആ ആ

ഓക്കേ ആ ആ ആണോ ആ ആ ആ ആ ഇപ്പം കമ്പനി ആണോ അതിപ്പം എനിക്ക് വന്നിട്ട് നോ നോക്കിയിട്ടേ പറയാൻ പറ്റൂ ഇപ്പോൾ ഏഷ്യൻറ്റെയൊക്കെ നല്ലതാണ് ആ ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഇപ്പോൾ വാൾ പുട്ടിയൊക്കെ ചെയ്യണമായിരിക്കും ഇപ്പം എന്താണെന്നുവെച്ചാൽ അഞ്ച് വർഷമായില്ലേ നിങ്ങളിപ്പോൾ പെയിന്റ് അടിച്ചിട്ട് അപ്പോൾ എനിക്കൊന്ന് വന്നിട്ട് നോക്കിയാലേ അത് പറയാൻ പറ്റൂ എറൗണ്ട് ഇപ്പോൾ എറൗണ്ട് എൺപതിനായിരത്തിൻ്റെ അടുത്തൊക്കെയാവും കാരണം കുറേ വർഷങ്ങളായില്ലേ ഉം ഉം ഇല്ല എല്ലാം എല്ലാം കൂടിയിട്ടാണ് പറഞ്ഞത് ഓക്കേ ആ

ആ ഓക്കേ ഞാൻ ഒരു ദിവസം വന്നിട്ട് നോക്കാം എന്നിട്ട് പറയാം ഞാൻ എത്ര ആവുമെന്നുള്ളത് ആ ഓക്കേ ഓക്കേ ശരി ശരി ഏതാണ് ഞാനൊരു ഓക്കേ ചേച്ചി ഞാൻ എനിക്ക് ഇപ്പോൾ വന്നിട്ട് നോക്കിയാലേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ കാരണം എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ നോക്കണമല്ലോ വീടിൻ്റെ കൂടുതൽ പണി ഉണ്ടോ അങ്ങനെ ഒക്കെ ഓക്കേ ശരി ശരി